എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതല് യാത്ര പോകാനായിട്ട് താൽപര്യപ്പെടുന്നത് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഹണിമൂൺ പോകില്ലേ അതുപോലൊരു യാത്രയാണ് അത് നമ്മുടെ പാര്ട്ട്ണറുടെ കൂടെ പോവാൻ പറ്റുന്നത് ഒരു വലിയൊരു കാര്യമല്ലേ അതായത് ഇപ്പോള് നമ്മള് കൂട്ടുകാരുടെ കൂടെ യാത്ര പോയിട്ടുണ്ട് വീട്ടുകാരുടെ കൂടെ പോയിട്ടുണ്ട് അപ്പോള് ഇവരുടെ കൂടെ പോകുമ്പോള് ഒരു പ്രത്യേക ഇതാണ് നമ്മള് പോയിട്ട് അവരുടെ കൂടെ പോയിട്ടുള്ള കാര്യങ്ങള് നമ്മള് പോയ സ്ഥലങ്ങള് അപ്പോള് അവിടത്തെ ഫുഡ് ഇതൊക്കെ നമ്മള് പോവാത്തിടത്തൊക്കെ പോവുകയല്ലേ ഇവരുടെ കൂടെ പോകുമ്പോള് എന്നെ സംബന്ധിച്ച് എനിക്കതാണ് ഏറ്റവും കൂടുതല് ഇഷ്ടം നമ്മുടെ പഴയ കാര്യങ്ങളക്കെ എല്ലാ കാര്യങ്ങളും അവരോട് സംസാരിക്കാൻ പറ്റും നമ്മളിപ്പോള് കൂടുതല് എനിക്കിഷ്ടം ബൈക്കില് പോകുന്നതാണ് അപ്പോള് നമുക്കവരോട് ഓരോരോ കാര്യങ്ങള് നമ്മളിന്ന സ്ഥലത്ത് പോയിട്ടുള്ള കാര്യങ്ങളും കഴിച്ചിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം പങ്കുവെക്കാൻ പറ്റും അപ്പോള് പുതിയ നമ്മള് പോകാത്തിടത്തോട്ട് പുതിയ സ്ഥലത്തോട്ടായിരിക്കുമല്ലോ പോകുന്നത് അവിടെ ചെല്ലുമ്പോള് എന്തോരം കാഴ്ചകള് കാണാനുണ്ട് ഒത്തിരി കാഴ്ചകള് കാണാം ഒത്തിരി ഫോട്ടോസ് എടുക്കാം നല്ല ഫുഡ്ഡൊക്കെ കഴിക്കാം അതൊരു വല്ലാത്ത അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കേറ്റവും കൂടുതല് പോകാൻ താൽപര്യപ്പെടുന്നത് കല്യാണം കഴിഞ്ഞ് പോകാനാണ് ഇഷ്ടം നമ്മളില് പലർക്കും അതായിരിക്കും ഏറ്റവും കൂടുതല് ഇഷ്ടം കാരണം വീട്ടുകാരുടെ കൂടെ പോകുന്നെന്ന് പറയുമ്പോള് അത് വേറൊരനുഭവമാണ് ആ ഒരു പ്രൈവസിയും കാര്യങ്ങളും അതിലുപരി പ്രൈവസിയും കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാരോടൊപ്പം പോകുമ്പോള് കിട്ടും ഇപ്പോള് നമ്മള് എന്തേലുവൊക്കെ പറഞ്ഞാല് പോലും ഇപ്പോള് നമ്മുടെ സ്കൂളിലെ കാര്യങ്ങള് ചിലപ്പോള് നമ്മളെന്തേലും കുരുത്തക്കേട് കാണിച്ചതായിരിക്കാം അതിപ്പോള് വീട്ടുകാരോട് പറഞ്ഞാല് അവർക്കിഷ്ടപ്പെടില്ല കൂട്ടുകാരോട് പറയുമ്പോള് ആ എടീ ഞാനിങ്ങനാ അല്ലെങ്കില് എടാ ഞാനങ്ങനല്ല അതൊക്കെ പറയുമ്പോള് അതൊരു വേറൊരു വൈബാണ് അപ്പോള് നമ്മുടെ ഈ കൊച്ചു കൊച്ചു കുസൃതികള് കല്യാണം കഴിഞ്ഞു പോകുന്ന പാട്ട്ണറിനോട് പറയുമ്പോഴോ അത് വേറൊരു വൈബാണ് അപ്പോള് അവര് അവര്ക്ക് അവരുടെ കൂട്ടുകാരുടെ കൂടെ പോയതും ഫാമിലിയുടെ കൂടെ പോയതും ഒക്കെ നമ്മളോടും പങ്കു വെക്കും അപ്പോള് രണ്ടുംകൂടെ ചേരുമ്പോള് ഒരു വല്ലാത്തൊരു ഇതല്ലേ അപ്പോള് രണ്ടു പേരുടെ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞ് ചിരിച്ച് ഉല്ലസിച്ച് നല്ലൊരു യാത്ര പോകുന്നത് ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എല്ലാവർക്കും അതായിരിക്കും ഏറ്റവും കൂടുതല് ഇഷ്ടപ്പെടുന്നത് പിന്നെ ചിലർക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതായിരിക്കും ഇഷ്ടം അത് അധികം ആൾക്കാരെ ഒന്നും കൂട്ടാതെ ഒറ്റയ്ക്ക് പോകുന്നതായിരിക്കും ഇഷ്ടം പിന്നെ എനിക്ക് എല്ലാവർക്കും ഓരോരോ വ്യത്യസ്തമായ ഇഷ്ടങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളും ഉണ്ടല്ലോ അത് ജീവിക്കാനാണ് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടം ഞാനൊരു എന്റൊരു ഇഷ്ടം പറഞ്ഞതാണ് ഒരോരുത്തരും കൂടുതലും ബോയ്സിനെ സംബന്ധിച്ച് അവർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനാണ് എപ്പോഴും ഇഷ്ടം ആ പ്രത്യേക വൈബാണെന്നാണ് പറയുന്നത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോള് നല്ല യാത്ര യാത്രയ്ക്കെപ്പോഴും അനുയോജ്യം നമുക്കിഷ്ടപ്പെടുന്ന തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോകുകയല്ലേ അവിടത്തെ ഇപ്പം രാവിലെ ആണെങ്കില് പോലും നമ്മള് പോകുമ്പോള് മഞ്ഞൊക്കെ ഉണ്ടെങ്കില് അതൊക്കെ കണ്ടുപോവാന് നല്ലൊരിതാ വീഡിയോ ഒക്കെ പിടിച്ച് ഒക്കെ ഒരു പ്രത്യേക ഒരിതാണ് അല്ലേലും നമ്മള് വീട്ടില്നിന്ന് മാറി നില്ക്കുമ്പോള് തന്നെ വേറൊരിതാണ് ഇപ്പോള് എന്തേലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കില്പ്പോലും നമ്മളൊരു ട്രാവൽ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ഹെല്പ്ഫ്ഫുൾ ആയിരിക്കും ഇപ്പോള് എത്ര നമ്മളിപ്പോള് ഒരു സപ്പോസ് നമ്മളിപ്പോള് ഒരു റേയ്ഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് പോകുന്നത് നമുക്കൊരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് നമ്മളിപ്പോള് ഒന്നോ രണ്ടോ അവരിപ്പോള് നമ്മളെ ചിലപ്പോള് വിളിക്കുവായിരിക്കും പക്ഷെ കിട്ടത്തില്ലായിരിക്കും പക്ഷേ നമ്മള് അതില്നിന്നെല്ലാം മോചിതയായി സമാധാനത്തോടിരിക്കാൻ ആയിരിക്കും രണ്ടു ദിവസം പോകുന്നത് അത് തന്നെ ആയിരിക്കും നമുക്കേറ്റവും വലിയ ഇത് ചിലപ്പോള് നമ്മള് ടെൻഷനും സ്ട്രെസ്സുമെല്ലാം കാരണം നമ്മൾ വീർപ്പുമുട്ടുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ പൈസ കണ്ടെത്തി യാത്ര പോവുകയാണെങ്കില് അതായിരിക്കും നമുക്കേറ്റവും ഭയങ്കര യാത്ര ഭയങ്കര സെറ്റപ്പാണ് ഏറ്റവും ആൾക്കാരിലേറ്റവും കൂടുതല് കണ്ടുവരുന്നത് യാത്ര പോകുന്നതു തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്കെൻ്റെ പാര്ട്ട്ണറുടെ കൂടെ പോകുന്ന യാത്രയാണ് ഏറ്റവും താൽപര്യപ്പെടുന്ന യാത്ര